ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻറ്റെ ഇടപെടലുകൾ നടത്താറുണ്ട് നടത്തീട്ടുവുണ്ട് അതായത് ഇപ്പോൾ ഗവൺമെൻറ്റ് സ്കൂളുകളിലാണെങ്കിൽ ഉച്ചഭക്ഷണമുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് പുസ്തകങ്ങളൊക്കെ ഫ്രീയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ യൂണിഫോമിൻറ്റെ മെറ്റീരിയൽ കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റ് നടപ്പിലാക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിലെത്താൻ വേണ്ടീട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻറ്റെ ഭാഗത്ത്ന്ന് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്നവരായിരിക്കും അപ്പം ആ കൃഷിയുടെ സമയത്തൊക്കെ അച്ഛനെയും അമ്മയെയൊക്കെ സഹായിക്കാൻ വേണ്ടി കുട്ടികളും പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അത് കുട്ടികളിൽ പഠനത്തിൻറ്റെ ഒരു മുടക്കം ഉണ്ടാകാറ് ഉണ്ടാകാറുണ്ട് അങ്ങനെ മുടക്കം വന്ന് കഴിയുമ്പോൾ പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പം അവർക്കൊന്നും മനസിലാകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കേത്തും കാരണം എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ പഠിക്കണോന്നൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് ഇങ്ങനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ജോലികൾ ഇപ്പോൾ നമുക്ക് നിലനിൽക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടു മതി പഠിക്കാൻ പോകുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം അവർ കുട്ടികളോട് ഇങ്ങനെയുള്ള പണിക്ക് പോകാൻ പറയും പിന്നെ അങ്ങനെ കുറച്ച് ആയി കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് തന്നെ പൊതുവെ പോകാൻ മടിയായിരിക്കും പിന്നെ ഉള്ളതെന്നു വെച്ചാൽ ഇപ്പം സ്കൂളുകളിലൊക്കെ പോവുമ്പം ചിലർ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുന്നു അല്ലെങ്കിൽ ബാഗ്കൾ അങ്ങനൊക്കെ കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും അതൊന്നും നേടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അപകർഷതാ ബോധത്തിൽ അത് അതിൽ നിന്ന് പിൻവാങ്ങുന്ന കുട്ടികളുണ്ട് പിന്നെ ചിലർക്ക് ചിലെടുത്ത് യൂണിഫോമിനുള്ള തുണികൾ കൊടുത്താലും അത് തയ്ച്ച് ഇടാനുള്ള വരുമാനം പോലും ഇല്ലാത്ത വീടുകൾ കാണും ഗ്രാമീണമേഖലയിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അത് അതിൽ നിന്നും അവരങ്ങ് പിന്മാറും ഇപ്പം അച്ഛൻറ്റെ ജോലിയിലാണേലും ഇപ്പോൾ കടകളിലേലും അതിലൊക്കെ സഹായിച്ചു നിൽക്കുവാണെങ്കിൽ കൊച്ചിലേ തന്നെ ചെറിയ ചെറിയ ഒരു വരുമാനം പോലെ അവർക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കും പിന്നെ പഠിക്കണ്ട കാര്യമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകും പിന്നെ ഈ രീതിയിലങ്ങ് പോയാൽ മതി എന്നൊരു തോന്നലിലൂടെ അവർ സ്കൂളിലേക്ക് എത്താത്തതാകാം അല്ലാതെ താല്പര്യമുള്ള പേരെൻസ് എന്തായാലും നിർബന്ധിപ്പിച്ച് കുട്ടികളെ അയക്കുകയും ചെയ്യും അതിൽ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നവർ ഗ്രാമീണമേഖലയിൽ നിന്നന്നെ നല്ല രീതിയിലുയർന്നു വന്ന ഒരുപാട് കുട്ടികളുണ്ട് അതിപ്പോൾ ഓരോ സ്കൂളിലാണേലും ടീച്ചേഴ്സ് അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവരെ ഉയർത്തി കൊണ്ട് വരാറുമുണ്ട് പിന്നെ ഇങ്ങനുള്ള പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ ചെയ്യുകയും കൃഷിയിലൊക്കെ സഹായിക്കാനൊക്കെ പോവുകയുമെക്കെ ചെയ്യുന്നത് കൊണ്ടാകാം ഇവർക്ക് ചിലർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തതാകുകയും പിന്നീടതിലോട്ട് മടി തോന്നുകയും ചെയ്യുന്നത് പോകാതിരുന്നു കഴിഞ്ഞാൽ പിന്നതിനോടൊരു മടിയായിരിക്കും അപ്പോൾ ചില കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റു കുട്ടികൾ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുമ്പോൾ അത് അതൊരു കളിയാക്കുന്ന രീതിയിലേക്കൊക്കെ മാറാറുണ്ട് ഇന്നിപ്പം പക്ഷേ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഗ്രാമീണ മേഖലയിലുള്ള എല്ലാവരും സ്കൂളിലയക്കാറുണ്ട് അവരെല്ലാം നമ്മുടെ നഗര പ്രദേശങ്ങളെ അപേഷിച്ച് കൂടുതൽ പേരും നന്നായി പഠിക്കുകയും നല്ല ജോലിയിലൊക്കെ എത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്